ക്രിക്കറ്റെന്ന് പറയുമ്പോൾ ആവേശം വരുന്ന ഏറ്റവും കൂടുതൽ ആവേശം വരുന്നത് ഐ പി എൽ മത്സരം വരുമ്പോഴാണ് അപ്പം ആ ഒരു സമയത്തുള്ള ആവേശമെന്ന് പറയുമ്പം ഞാനും എൻ്റെ ചേട്ടനും രണ്ട് ഞങ്ങൾ ചെന്നൈ മുംബൈ ഞങ്ങളങ്ങനെയാ ചേട്ടനും ഞാനും കൂടെ എപ്പം നോക്കിയാലും അടിയായിരുന്നു അങ്ങനെയാ തുടങ്ങുന്നതുതന്നെ ഇവിടെ അതുകഴിഞ്ഞ് ഇവിടെ തൊട്ടിപ്പുറത്ത് ഞങ്ങൾക്ക് ഗ്രൗണ്ടുണ്ട് രാവിലെ ചെന്നൈ മുംബൈ രണ്ട് ടീമായിട്ടങ്ങിറങ്ങും ഇത്തരം മത്സരങ്ങളാണ് വെക്കുന്നത് അതിനകത്ത് ബെറ്റുവെപ്പുണ്ട് പിന്നെ വിഷയങ്ങളുണ്ടാകും എല്ലാം നടക്കും ഇതെല്ലാം ഉണ്ട് രാവിലെ കറക്റ്റ് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും വരും പത്ത് മണിയാകുമ്പോൾ എല്ലാവരും വന്ന് ഞങ്ങൾ ഗ്രൗണ്ടിൽ കയറി കളിക്കും പിന്നങ്ങ് ബഹളമാ കളിയുടെ വാശിയങ്ങ് മൂക്കും അങ്ങനെയൊരു സമയമാണ് ഈ ഐ പി എൽ ക്രിക്കറ്റെന്ന് പറയുന്നത് പിന്നെ ഇവിടുണ്ടാകുന്ന അനുഭവം നമുക്കിനി പിന്നെയുള്ളത് ഫ്ലക്സ് വെപ്പ് പിന്നെന്തുവാ ബെറ്റുവെപ്പ് പിന്നെ അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പടക്കം പൊട്ടീര് അതൊക്കെ ഇവിടെ നല്ല നല്ല രസമാ അതാ സമയത്തുള്ളൊരു വികാരം നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത് ഇവിടെ എപ്പോഴും നോക്കിയാൽ മതി ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും രണ്ട് ഇപ്പോഴും മുംബൈ ചെന്നൈയ്യേയുള്ളൂ വേറെ ടീമൊന്നും ഇവിടെയില്ല മുബൈയും ചെന്നൈയും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കുന്നത് അടിയല്ല സൗഹൃദപരമായിട്ടുള്ള വിഷയങ്ങളെ ഉളളൂ വല്യ അടിയൊന്നുമില്ലാ അങ്ങനെയങ്ങ് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ വേറെ ആരും ഐ പി എൽ കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങളൊക്കെ പിന്നെ അങ്ങനെതന്നെ പോകും അതുവരെ പിന്നെ ഇവിടെ വിഷയമാണെന്നേ ഉളളൂ പിന്നെ ഇത് ക്രിക്കറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് വാശിയല്ലേ വേണ്ടത് വാശിയില്ലാതെ ഒന്നും നടക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ കളിയെക്ക് കളിയൊക്കെ നടക്കുമ്പോഴും ഇപ്പോൾ ഞങ്ങൾ പിന്നെ അസോസിയേഷനുണ്ട് അതിനകത്ത് ക്ലബ്ബി കിടന്ന് വിഷയ മറ്റേ ലൈബ്രറി ചെന്ന് കളി കാണുമ്പോൾ അതിനകത്ത് തലയും വിളിയുമുണ്ട് വിഷയങ്ങൾ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു ആ സമയത്തുള്ളതാണ് കാരണം അത് വികാരം ക്രിക്കറ്റിനോടുള്ള ഏറ്റവും കൂടുതൽ ആവേശമാണത് ക്രിക്കറ്റെന്ന് പറയുമ്പോൾ എന്താ പറയുന്നേ രക്തത്തിലലിഞ്ഞുപോയൊരു സംഭവാണത് കാരണം ഏഴു മണിയാവുമ്പോൾ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കുന്നതും അത് കഴിഞ്ഞ് പിന്നെ അതെന്താ അവൻ ഫോർ അടിച്ചേ ഛേ അവൻ വിക്കറ്റായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അലയ്ക്കുന്നതും അതിനൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു വികാരമാണത് ഐ പി എൽ മത്സരങ്ങളിൽ ഐ പി എല്ല് ഇപ്പോൾ എട്ട് ടീമുണ്ട് എട്ട് ടീം ഉണ്ടെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ചെന്നൈ മുംബൈയാണ് കാരണം അഞ്ച് കപ്പ് രണ്ടു പേർക്കുമുണ്ട് അതിൽ കൂടുതലാരിനി കപ്പെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടാമത് പിന്നെ ഉള്ളത് സച്ചിൻ്റെ ടീമാണൊന്ന് പിന്നെ ധോണിയുടെ ടീം സച്ചിൻ്റെലും രോഹിത്തിന്റെയും ടീമാണ് ഇപ്പോൾ മുംബൈ ഇപ്പുറത്ത് അദ്വാനിയുടെ ടീമും പിന്നെ അതുകഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞുള്ള കളിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രിക്കറ്റല്ല ഗെയിമായിട്ട് പറയുകയാണെങ്കിൽ മണപ്പുറത്ത് ഫുട്ബോൾ കളിയുണ്ട് ഫുട്ബോൾ കളി വോളിബോൾ കളി വോളിബോളുണ്ട് എല്ലാം വൈകീട്ട് അതും കളിക്കുമ്പോഴും രണ്ട് ഈ ക്രിക്കറ്റിൻ്റെ പേര് പറഞ്ഞാൽ ടീം മാറ്റി മാറ്റി കളിക്കുന്നത് അതായത് ചെന്നൈ മുംബൈ അങ്ങനെതന്നെയാ ഞങ്ങൾ കളിക്കുന്നത് വ്യത്യാസമില്ല ഫുട്ബോൾ കളിക്കുമ്പോഴും ആ ടീമിടുമ്പോൾ ചെന്നൈ മുംബൈ പേരുമായിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് അങ്ങനെയാ പോകുന്നത് പിന്നേ രാവിലെ ഒരു അതുകഴിഞ്ഞ് മണപ്പുറത്ത് കളി കഴിഞ്ഞാൽ പിന്നെ രാവിലെയാ രാവിലെ പിന്നെ ആദ്യം ആറുമണിക്കുതന്നെ ഒരു ഷട്ടിൽ ബാറ്റെടുത്തങ്ങിറങ്ങും അത് പിന്നെ കളിയുണ്ടാകും അപ്പം ഈ കളിക്കുമ്പോഴേല്ലാം ഈ രണ്ടു ടീമായിട്ടാണ് ഞങ്ങൾ കളിക്കത്തുള്ളൂ എപ്പോഴും ചെന്നൈ മുംബൈ ആ ഐ പി എൽ തീരുന്നത് വരെ അതങ്ങനെയാണ് പിന്നെയുള്ള ദിവസം പിന്നെ അത് കഴിഞ്ഞ് ആറുമണി കഴിഞ്ഞ് ഒരു എട്ടുമണി വരെ ഷട്ടിൽ ബാറ്റ് അത് കഴിഞ്ഞ് കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞ് പത്ത് മണിയാകുമ്പം എല്ലാവരും വരും പിന്നെയത് കഴിഞ്ഞ് ബാറ്റും എടുത്ത് നേരെ കണ്ടത്തിലോട്ടിറങ്ങുക ക്രിക്കറ്റ് കളി ടീമായിട്ട് മാറി വൈകീട്ട് ഒരു വൈകീട്ടൊരു ആറരയാകുമ്പം ആറരയല്ല നാലേ മുക്കാൽ അഞ്ചുമണിയാകുമ്പം മണപ്പുറത്ത് പോകും മണപ്പുറത്ത് പോയി ഫുട്ബോള് കളിയുണ്ട് ആൾ ആൾ തികഞ്ഞില്ലെങ്കിൽ നേരെ വോളിബോളിന് കയറും പിന്നെ വോളിബോള് കളിയാണ് അതൊക്കെയൊരു നല്ലൊരു അനുഭവമാണ്